എൻ്റെ ജില്ല എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയാണ് ഞാൻ കാസ്റോഡ് ജില്ലയിലെ മഞ്ഞപ്പാടിയിലാണ് താമസം അപ്പോൾ അവിടുത്തെ മണ്ണിന് ഒരു പുളിപ്പ് രസമാണ് എന്ന് കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുമ്മായം ചേർക്കേണ്ടതായിട്ടുണ്ട് ഏതൊരു കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും കുമ്മായത്തിൻ്റെ അളവ് കുമ്മാ കുമ്മായം ചേർക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ കൃഷിഭവനിലും പോയിട്ട് അന്വേഷിച്ചപ്പോൾ മണ്ണ് പരിശോധനക്കായി കൊടുത്ത അന്വേഷിച്ചപ്പോഴെ അവർ മണ്ണിൽ കൂടുതലായിട്ട് പുളിരസം ഉള്ളത് കൊണ്ട് കുമ്മായം ചേർക്കാനാണ് കുമ്മായം ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം കൃഷി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും കൃഷി ആയാലും പൂ നടന്നുണ്ടെങ്കിലും പതിനഞ്ച് ദിവസം കുമ്മായമിട്ട് കഴിഞ്ഞശേഷം നടാനാണ് അവിടെനിന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെതന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരി ആയ വ്യക്തിയോടും പറഞ്ഞുകൊടുത്തു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കുമ്മായം ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വേണം കൃഷി ചെയ്യാൻ എന്നും അവൾ അതേപടി അനുസരിക്കുകയും അവൾക്കൊരു ഗാർഡനിങ് ചെയ്യാൻ നല്ലൊരു താൽപര്യം ഉണ്ടാ ഉണ്ടായതുകൊണ്ടും അവൾ എന്നോടാണ് ആദ്യമായിട്ട് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മണ്ണ് ഉപ്പ് രസം പുളിരസം ഉള്ളതുകൊണ്ട് കൃഷി ഓഫീസർ പറഞ്ഞിട്ടുണ്ട് കുമ്മായം ചേർക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവൾ മണ്ണും കുറച്ചു പൂഴിയും കുമ്മായവും പിന്നെ ചകിരിയും മിക്സ് ചെയ്ത് ചട്ടിയിൽ ഇട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനുശേഷമാണ് അവൾ പൂ തൈ നട്ട് പിടിപ്പിച്ചത് അത് കഴിഞ്ഞ് വീട്ടിലുള്ള എന്ത് വേസ്റ്റും പച്ചക്കറി എന്ത് വേസ്റ്റും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിലുള്ള എന്ത് പച്ചക്കറി വേസ്റ്റ് ആയാലും മീൻ കഴുകിയ വെള്ളമായാലും ചിക്കൻ കഴുകിയ വെള്ളമായാലും മറ്റ് ഉള്ളീന്റെ തൊ തൊലി ആയാലും പിന്നെ വെളുത്തുള്ളിരെ തൊലി ആയാലും ഒരു ബക്കറ്റിൽ എടുത്ത് മൂടി വയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ അതുപോലെതന്നെ ചെയ്യുകയും ബക്കറ്റിൽ ഒരു മൂടിയുള്ള ബക്കറ്റിൽ ഉള്ളി ഉള്ളീൻ്റെ തൊലി പച്ചക്കറി വെയ്സ്റ്റ് മൊത്തം അതിലിട്ട് വയ്ക്കുകയും പിന്നെ അത് ഒരു കുഴമ്പ് രൂപമായ ശേഷം ചെടികൾക്കെല്ലാം തളിച്ചു കൊടുക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അവൾ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേപ്പിൻപിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഇവയൊക്കെ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങളാണ് പിന്നെ വേറെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകമായാലും പ പശുവിൻ്റെ വളം പശു തൊഴുത്തിലെ പശു ചാണകം മൂത്രവും ആയാലും അതൊക്കെ ചെടികൾക്ക് നല്ല പോഷകം നൽകുന്നുണ്ട് അതുകൊണ്ടുതന്നെ അതും കിട്ടുമെങ്കിൽ കിട്ടുമെങ്കിൽ അതും ശേഖരിച്ച് പൂച്ചെടിക്കായാലും പച്ചക്കറിക്കായാലും ഇട്ടുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾക്കെല്ലാം ഒരു മഞ്ഞ മഞ്ഞ നിറത്തിൽ കാണുന്നുണ്ട് ഇല ഇലയൊക്കെ മഞ്ഞ നിറത്തിൽ കാണുന്നതിന് ഞങ്ങൾ പിന്നെ മറ്റേ വേപ്പ് വേപ്പെണ്ണ തളിച്ചു കൊടുക്കാറുണ്ട് സ്പ്രേ ചെയ്ത് ബോട്ടിൽ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്തു കൊടുക്കാറുണ്ട് അത് ചെടികൾക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അതും അവളോട് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് പറഞ്ഞത് അവൾക്ക് കുരുമുളക് ഇത് തെങ്ങിന്റെ കുരുമുളകും വേണം പിന്നെ നെറ്റ് കെട്ടിയിട്ട് കുറേ പ്ലാൻസ് ഒക്കെ അവൾ പറഞ്ഞു തന്നായിരുന്നു അപ്പം ഞാൻ അതനുസരിച്ചിട്ട് അവൾക്ക് കുരുമു കുരുമുളകിൻ്റെ തൈയും ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നല്ല രീതിക്ക് പോകുന്നു എന്നു പറഞ്ഞ് എന്നെ വിളിച്ചിട്ടും ഉണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് സെന്റ് സ്ഥലമേ അവൾക്കുള്ളൂ പക്ഷേ അവൾ ടെറസിൻ്റെ മോളിൽ രണ്ട് ചിരട്ട വെച്ച് ഓട് വെച്ച് അതിൻ്റെ മുകളിൽ ഗ്രോ ബാഗ് നിറച്ച് പച്ചക്കറിയും പയറും എല്ലാം ടെറസിൻ്റെ മുകളിൽ ചെയ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിലും നല്ല നല്ലതായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് വീട്ടിലുള്ള യൂസിന് വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ കിട്ടുന്നുണ്ട് ടൊമാ ഇത് തക്കാളി ആയാലും പയറായാലും കയ്പക്ക ഇത് താര പീര ഞരമ്പൻ എന്നിവയൊക്കെ അവൾ വീട്ടിലെ ആവശ്യത്തിന് അവിടെ ടെറസിൽ നിന്ന് ടെറസിൽ ഉണ്ടാക്കിയ പച്ചക്കറിയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഹസ്ബൻഡും നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ അവൾ സന്തോഷമാണ് എനിക്ക് നല്ല നല്ല നല്ലൊരു ഇത് പ്രോത്സാഹനം കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാരുന്നു ഇത് ഇത് നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ താൽപര്യമുണ്ട് ടെറസിൻ്റെ മോ മോളിൽ നെറ്റ് കെട്ടി ഡ്രാ ഇത് പാഷൻ ഫ്രൂട്ട് എന്നിവയൊക്കെ ഇവൾ ചെയ്യുന്നുണ്ട് അപ്പം അതിന് ആരെങ്കിലും ഗസ്റ്റ് വന്നെങ്കിൽ അതിൻ്റെ ജ്യൂസ് ആണ് അവൾ കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ അതിൻ്റെ ജ്യൂസ് ആണ് എനിക്ക് കുളിക്കാൻ കുടിക്കാൻ ആയിട്ട് തന്നത് അപ്പോൾ ജൈവ ജൈവകൃഷിയാണ് അവൾ ഉദ്ദേശിക്കുന്നത് അത് നന്നായി നല്ല രീതിയിൽ പോയതിൽ അവൾക്ക് അവൾ എന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നല്ല ഒരു ഇത് കുറച്ചു വിപുലമായി കൊണ്ടുപോവാനായിട്ട് അവർ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൃഷിഭവനിൽ ഇടക്കിടയ്ക്ക് അവർ പോവാറുണ്ട് വളത്തെ പറ്റിയും മണ്ണിനെ പറ്റിയും മറ്റുള്ള ക്ലാസുകൾ അവൾ എലവാട്ടത്തെ കുറിച്ചും മറ്റുള്ള ക്ലാസുകൾ അവർക്ക് കേൾക്കാൻ കേൾക്കാൻ വേണ്ടി ക്ലാസ്സ് ക്ലാസ്സിന് പോയിട്ട് കൂടുതൽ അറിവുകൾ നേടാനും കൃഷിഭവൻ വഴി അവർക്ക് നല്ല നല്ല വളവും ഒക്കെ സബ്സിഡി വഴി അവർക്ക് കിട്ടുന്നതുകൊണ്ടും നല്ലൊരു മാറ്റം അവളിൽ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്